പരിചയമില്ലാത്ത മേഖല ആണ് മേഖല ആണ് നൃത്തമെങ്കിലും വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് നൃത്ത മേഖല

നൃത്തം കളിക്കുകയും ഇതൊക്കെ ചെയ്തുണ്ടല്ലാതെ ഒറ്റയ്ക്ക് ആ ഒരു നൃത്ത കല അഭ്യസിച്ചിട്ടും ഇല്ല അതിനുള്ള സാഹചര്യം കാലങ്ങൾലോ അതിനുള്ള അവസരവും ലഭിച്ചിട്ടില്ല എങ്കിലും കുട്ടികളോട് ചേർന്ന് ഈ പരിപാടി അവതരിപ്പിക്കുവാനും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുവാനാണ് നൃത്തം എപ്പോഴും കണ്ണിന് കുളിർമയേകുന്നതും നയനാന്ദകരമായ ഒരു കലയാണല്ലോ നൃത്തം അതുകാരണം ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് അതുകാരണം ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുകയും അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കലയാണ് അത് വലിയ സമ്മാനാർഹമായ രീതിയിലൊന്നും ചെയ്തില്ലെങ്കിലും

ഒക്കെ വരുന്ന ഇടങ്ങളിൽ കുട്ടികളോടൊപ്പം ഇത് പങ്കെടുക്കുകയും അതിനകത്ത് സംബന്ധിക്കുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് കൂടുതലും മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനും കൂടുതലും ഊർജസ്വലത ലഭിപ്പിക്കുന്നതിനും കാരണം നൃത്ത ശില്പം ആ ഒരു മേഖല ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് അത് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്ത് നൃത്തം ചെയ്യാത്ത ഒരു കുളു പെൺകുട്ടി പോലും ഉണ്ടാകുമോ എന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ നൃത്തം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കുട്ടികളാണ് കാരണം അവരുടെ കഴിവുകൾ എപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുക അതിനുള്ള അവരുടെ മനോധൈര്യവും മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും ഞാൻ മിടുക്ക മിടുക്കിയാണ് മിടുക്കനാണെന്ന് കാണിക്കാനുള്ള അവരുടെ ആത്മവിശ്വാസവും എല്ലാം അതിൽ നിന്ന് പ്രകടമാകുന്നു കഴിവുകൾ ഉള്ളവർ മുന്നോട്ട് വന്ന് ഈ ഒരു മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഓരോ കുട്ടികളുടെയും കഴിവ് കണ്ടെത്തി അതിനെ മുന്നോട്ടു നയിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമാണ് പിന്നിലേക്ക് മാറി നിൽക്കുന്ന കുട്ടികൾ ആണെങ്കിൽ അവരെ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാർ അവർ മുന്നോട്ട് വരികയും ചെയ്യേണ്ടതാണ് അതിന് വിജയം ലഭിക്കുക എന്നുള്ളതിനുപരി കുട്ടികളുടെ മുൻപിൽ ഇപ്പം ചെയ്ത് കാണിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനവും കയ്യടിയും അവരെ ഏതൊരു ജീവിതാവസ്ഥയിലും മുന്നോട്ട് പോകുവാൻ നയിക്കുകയും ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രോത്സാഹനം വളരെ അത് മനസ്സിനും ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ് അത് നിവര്ത്തും നമ്മളെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാനും സമൂഹത്തില് നമ്മളും ഇടപെട്ട് മറ്റുള്ളവർക്കും ജീവിക്കേണ്ടവരാണെന്ന് ഉള്ള ബോധ്യവും കടമയും ഉത്തരവാദിത്വവും എല്ലാം ഓരോ കല ആ ഏതൊരു കലയാണെങ്കിലും അത് ചെയ്യുക വഴി കൂടുതൽ മനുഷ്യന് പ്രയോജനപ്പെടുകയും ഉപരാ ഉപകാരമാവുകയും ചെയ്യുന്നു ഈ ഒരു മേഖല ഇപ്പം പഴയ കാലങ്ങളധികം മുതിർന്നവരൊന്നും അധികം ചെയ്തിട്ടില്ലെങ്കിലും അന്ന് കിട്ടുന്ന അവസരങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പ്രശോഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതുപോലെ ഞാനും അങ്ങനെ ആഗ്രഹിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു